ഞാനങ്ങനെ മലയാള സാഹിത്യത്തിലെ എഴുത്തുകാരെയോ കവികളെയോ പറ്റി അധികം ശ്രദ്ധിച്ചിട്ടില്ല ഞാനങ്ങനെ പൊതുവെ അങ്ങനെ കവിതകളോ എഴുത്തുകളോ അങ്ങനെ നോക്കാറില്ല സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലാതെ അതിന് ശേഷം അതൊന്നും നോക്കിയിട്ടില്ല എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനെന്ന് പറയാൻ ബെന്യാമിനാണ് ബെന്യാമിൻ്റെ ആടുജീവിതം ആണ് എൻ്റെ എപ്പോഴും എനിക്കിഷ്ടപ്പെട്ട ഒരു രചന എന്ന് പറയുന്നത് അതിൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം എത്രത്തോളം യാതനകൾ മരുഭൂമിയിൽ അനുഭവിച്ചു അതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവതരണമെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ കവികളിൽ എടുത്ത് പറയാനാണെങ്കിൽ ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെത്തന്നെ എന്താണ് നല്ലൊരു വ്യക്തതയുണ്ട് അർത്ഥമുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞേട്ടത്തിയോ അങ്ങനെ എന്തോ ഒരു കവിതയുണ്ട് അത് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ് അത് എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് നല്ല രസമാണ് ഒരനിയനും ഒരു ചേച്ചിയും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥ വിവരിക്കുന്ന ഒരു കവിതയാണ് അതുകൊണ്ടെനിക്ക് ആ കവിത വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഒ എൻ വി കുറുപ്പ് സാറിനെയും എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് പിന്നെ എടുത്ത് പറയാൻ പറ്റിയത് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ ആണ് ആ നോവൽ ഫുൾ ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല കുറച്ച് നല്ല ഇൻ്ററെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അവ അവരും സ്ത്രീകളുടെ സ്ത്രീകളെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു കക്ഷിയാണ് അതുകൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടെ ഞാനതിൽ സെയ്ഫ് പ്രകടിപ്പിക്കുന്ന ആളാണ് അങ്ങനെയുള്ള സാഹിത്യ രചനകൾ അതുകൊണ്ട് ഞാൻ കെ ആർ മീരയുടെ ചില നോവലുകളും എഴുത്തുകളും ഒക്കെ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിലൊരാളാണ് കെ ആർ മീരയും